എൻ്റെ കുടുംബം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട് എൻ്റെ അമ്മ അച്ഛൻ പിന്നെ എനിക്കൊരു രണ്ട് വയസ്സായിട്ടുള്ള ഒരു മോനുണ്ട് പിന്നെ എൻറെ ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ എൻ്റെ സ്വന്തം വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്താണ് അപ്പം പിന്നെ എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ വീടാണ് കോഴിക്കോട് അപ്പോൾ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷം ആകുന്നു അപ്പം ആറുവർഷം അപ്പം എനിക്ക് അഞ്ചാമത്തെ വർഷമാണ് എനിക്ക് ജോലി കിട്ടിയത് ഗവൺമെൻറ്റ് ജോലിയാണ് കിട്ടിയത് അപ്പം സുഹൃത്തുക്കൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖില അനിത രാഖി ദീപേഷ് മിഥുൻ രാഹുൽ അജയ് അങ്ങനെയുള്ളവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷേ ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവര് അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തിനാണെങ്കിലും കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ് അതുകൊണ്ടുതന്നെ എനിക്ക് അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം